എത്രമാത്രം കോഴിയെയും കൊണ്ടാണ് നമ്മളിപ്പം സംസ്കരണ ശാലയിലേക്കു കൊണ്ടുപോകേണ്ടത് അതിനനുസരിച്ച് നല്ല വിസ് നല്ല വായു സഞ്ചാരവും അതുങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ആവകാം ആ വാഹനത്തിന് ഉണ്ടെന്നു ഉറപ്പാക്കണം പിന്നെ ദൂരെ ദീർഘദൂരമാണ് പോകേണ്ടിവരുന്നെങ്കിൽ അതുങ്ങൾക്ക് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാൻ തണൽ മേൽക്കൂരയൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്കു വണ്ടി നിർത്തി അതുങ്ങൾക്ക് വെള്ളവും തീറ്റയൊക്കെ വെച്ചുകൊടുത്ത് ഒത്തിരി ഓവർ സ്പീഡാകാതെ മിതമായ സ്പീഡിൽ പോയി നന്നായി അങ്ങനെ വേണം കൊണ്ടുപോകാനായിട്ട് പിന്നെ അതുങ്ങൾക്കു ഈ ഒത്തിരി ചൂടോ അല്ലെങ്കിൽ തിങ്ങി കിടന്ന് അതുങ്ങൾ മിക്കവാറും എത്തേണ്ട സ്ഥലമാകുമ്പോൾ പകുതി മുക്കാലും അതു ചത്തു കാണും കാരണം നന്നായിട്ട് വെയ് വായു സഞ്ചാരവും വേണ്ട ഒരു സാ ജീവിയാണ് കോഴി വായിന് ഒത്തിരി നാൾ കോഴി ചൂടുള്ള ഒരു സംഭവമാണ് ആ ചൂടിൻ്റെ കൂടെ തിക്കി നിറച്ചു കൊണ്ടു പോകുകയാണെങ്കിൽ എല്ലാ മറ്റുള്ള കോഴികളുടെയും കൂടെ ചൂടേറ്റ് മിക്കവാറും ഒരു പകുതി ശതമാനം കോഴിയും ചത്തുപോകും അതുകൊണ്ടാണ് അതുങ്ങൾക്ക് സമ്മർദ്ദം ഇല്ലാതെ ഇച്ചര് അത്യാവശ്യം അതുങ്ങൾക്ക് വേൻ ക ഇരുന്നു കിടന്ന് അല്ലയേലും ഇരുന്നാണെങ്കിലും വിശ്രമിക്കേണ്ട രീതിയിൽ വേണം ഈ ജീവികളെ കോഴിയെയും കൊണ്ട് നമ്മളതിൻ്റെ സംസ്കരണ ശാലയിലേക്കു കൊണ്ടു പോകാനായിട്ട് എന് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഒത്തിരി ദീർഘദൂരമാണെങ്കിൽ ഇടക്കു വണ്ടി നിർത്തി അതുങ്ങൾക്ക് എങ്ങനെയുണ്ട് അതുങ്ങൾക്ക് വല്ലതും ക്ഷീണം തട്ടുന്നുണ്ടോ അത്യാവശ്യം വെള്ളമുണ്ടോ ഭക്ഷണമൊക്കെ പാത്രത്തിൽ വെച്ചത് തീർന്നോ അല്ലേ വെള്ളം പിന്നെയും ഒഴിച്ചു കൊടുക്കണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സംസ്കരണ ശാലയിലേക്കു പോകുമ്പോൾ മിക്കവാറും കോഴി ചത്താ ആ ചത്ത കോഴിയായിട്ടായിരിക്കും അവിടെ ചെല്ലേണ്ടത് അതു കൊണ്ട് അതു വരാതിരിക്കാൻ ആവശ്യത്തിന് എത്രയായ കൊ കൊണ്ടുപോകേണ്ട സാം നമ്മുടെ അതിൻ്റെ അളവിന് അല്ലെങ്കിൽ അ അതിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള വലിയ വാഹനത്തിൽ വേണം കോഴിയെ ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്കു നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഓക്കേ താങ്ക് യൂ